അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഏഴ് എട്ട് രണ്ടായിരത്തി ഒന്ന് നാല് ഒന്ന് രണ്ടായിരത്തി മൂന്ന് മൂന്ന് ആറ് രണ്ടായിരത്തി രണ്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട്